ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യമാണത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാല് പതിമൂന്ന് ഈ വചനം എന്നെ വളരെ ഏറെ സ്വാധീനിച്ച ഒന്നാണ് കാരണം ഞാൻ തളർന്ന് ഇരിക്കുന്ന സമയത്ത് ഈയൊരു വചനം എൻ്റെ മനസ്സിലോട്ട് വരുമ്പം എനിക്ക് എനിക്കൊരു ധൈര്യവും ഒരു പ്രതീക്ഷയും പിന്നെ ഒരു വിഷമങ്ങളും ഒരു ശക്തിയും ഒരു ഉണർവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്നെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിനോട് നമ്മെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ദൈവം ഓരോ മതത്തിനും ഓരോ വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ മതത്തിൽ എൻ്റെ എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലന്നാണ് അതിന് അർത്ഥം വരുന്നത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ എനിക്ക് ധൈര്യം തരാൻ ധൈര്യം തരാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന് മാത്രമാണ് അപ്പോൾ ഈ വചനം ഓർക്കുമ്പം എനിക്ക് ജീവിതത്തിൽ ഉണർവും സന്തോഷവും ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മളെ ആശ്വസിപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയും പക്ഷേ നമ്മെ നമ്മളെ ആശ്വസിപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയോങ്കിൽ പോലും നമ്മുടെ കൂടെ എന്നും കാണുന്നത് ദൈവം മാത്രമാണ് ആ ദൈവമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം ഞാൻ തളർന്നിരിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ദൈവം എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എന്നെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമുക്ക് ശക്തിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മെ ശക്തനാക്കുന്ന ദൈവം നമ്മെ ശക്തനാക്കുമ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും